മെക്കാനിക്ക് ആണോ ആ ഞാനെ ഇപ്പോൾ കോഴിക്കോട് ബീച്ചിൻ്റെ തൊട്ട് ഇപ്പറം ഉള്ള റോട്ടില് എൻ്റെ വണ്ടി ഒന്ന് ജസ്റ്റ് ബ്രേക്ക് ഡൗൺ ആയി അപ്പോൾ വണ്ടി ജസ്റ്റ് നിന്ന് ഞാൻ ഇങ്ങനെ പൊക്കോണ്ട് ഇരിക്കുമ്പോൾ വണ്ടി പെട്ടെന്ന് നിന്ന് പോയി പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കീട്ട് ആണെങ്കിൽ സ്റ്റാർട്ട് ആവുന്നില്ല ആ പെട്രോൾ ഒക്കെ ഉണ്ട് അത് ഒന്ന് വന്ന് ചെക്ക് ചെയ്യാവോ എന്നാൽ ഞാൻ കൃത്യം ലൊക്കേഷൻ സെൻഡ് ചെയ്യാം ആ ഞാൻ ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് പോകുവായിരുന്നു എനിക്ക് ഇപ്പോൾ പോകാൻ വണ്ടി ഒന്നും ഇല്ല ഈ ജസ്റ്റ് ഇത് ഇപ്പോൾ ആ അപ്പം നിങ്ങൾ ഇങ്ങനെ റിക്കവറി എന്തിന് നിങ്ങള് തന്നെ എത്തിക്കുമോ

ആ അപ്പം നിങ്ങള് വന്ന് വന്ന് നോക്കിയാൽ അപ്പത്തന്നെ പേയ്മെൻറ്റ് ചെയ്യണോ

ആ അപ്പോൾ നിങ്ങള് തന്നെ ഞാൻ ഇവിടെ എന്നാൽ കീ നിങ്ങൾക്ക് വേണോ ആവശ്യം ഉണ്ടാകുമോ

ആ വിളിക്കാം ആ ഓക്കെ ഓക്കെ അപ്പോൾ ഇത് ഇന്ന് ചെയ്തിട്ട് ഉണ്ടെങ്കിൽ ഇത് ഇപ്പോൾ നമുക്ക് എന്ന് കിട്ടുമെന്ന് ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റുമൊ ആ എന്താ കംപ്ലയിൻറ്റീന്ന് അറിയാണ്ട് ഇപ്പോൾ പറഞ്ഞിട്ട് ആ എനിക്ക് വണ്ടി രണ്ട് ദിവസം കഴിഞ്ഞ് ഒരു ഒര് ആവശ്യം ഉണ്ടായിരുന്നു ആ എന്നാൽ നിങ്ങള് നോക്കീട്ട് ഞാൻ ലൊക്കേഷൻ അയക്കാം നിങ്ങള് വന്നിട്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് നോക്ക ഓക്കെ ഓക്കെ ആ ഞാൻ ലൊക്കേഷൻ സെൻഡ് ആക്കാം ഓക്കെ